എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ക്രീം ആണ് എന്നാൽ ഇപ്പോയിൽ വെച്ചിട്ടുണെങ്കിൽ ഫേസ് ക്രീമെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണെങ്കിൽ ഫെയ്സ് ക്രീമിന് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പമെന്നുവെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് വിപണിയിൽ കിട്ടുന്ന എന്തൊരു ക്രീം ആണെങ്കിലും ഇപ്പോൾ ഏത് ഫെയ്സ് ക്രീം ആണെങ്കിൽ നമുക്ക് അതില് എങ്ങനെ പോയാലും മായം ചേർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് തന്നെ നമുക്ക് പറയാം അപ്പം ഇപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും സ്മെല്ല് ഇല്ലാത്തതാണോ അയ്യോ ഇത് കൊള്ളില്ല ഇത് സ്മെൽലൊന്നും ഇല്ലന്ന് പറഞ്ഞ് നമ്മള് മേടിക്കില്ല അതോണ്ടെന്നേ നമ്മള് അതുണ്ടാക്കുന്ന മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടങ്കില് അതില് എങ്ങനെയാണെങ്കിലും മണം ചേർക്കും പിന്നെ ചിലതിലൊക്കെ ഒരു കളർ അതായത് വെള്ള കളറ് ലൈറ്റ് റോസ് അങ്ങനത്തെ കളറായിരിക്കും കൂടുതലും ഫെയ്സ് ക്രീമുകളൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ആ കളർ ആ കളറും ചിലപ്പോൾ ചേർക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം പല തരത്തിലുള്ള മായം ചേർത്തിട്ട് മാത്രമെ ഫേസ് ക്രീമുകളൊക്കെ ഇറക്കുന്നുള്ളു അപ്പോൾ മൈയ്നായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകാന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക അതേപോലെ പൗഡറാണെങ്കിലും ഫെയ്സ് ക്രീമാണെങ്കിലും നമ്മള് ഫെയ്സിലൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കാരണമെന്നു വെച്ചിട്ട് നമ്മുടെ കോശങ്ങളെയൊക്കെ അത് നശിപ്പിക്കും അതിലുണ്ടായിരിക്കുന്ന ബാക്ടീരിയ അതുപോലെ കെമിക്കൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കോശങ്ങളെ അതയത് നമ്മുടെ ചർമ്മത്തിൻ്റെ കോശങ്ങളെയൊക്കെ അത് വല്ലാതെ ബാധിക്കും